ഈ പ്രദേശത്തെ ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും അവരുടെ ഇടയിൽ സ്നേഹം നില നിർത്തുന്നതിലും കല വളരെ നിർണ്ണായകമായ പങ്കു വഹിക്കുന്നു പ്രാദേശിക കലകൾ പരമ്പരാഗതമായി പാരമ്പര്യമായി ജനങ്ങൾക്ക് പൂർവ്വികരിൽ നിന്ന് സിദ്ധിച്ച ഈ കലകൾ നമ്മുടെ ദേശത്തെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഘട്ടങ്ങളിൽ വിളവുകൾ ആഘോഷങ്ങൾ യസ് പ്രത്യേകിച്ചും നെൽ കർഷകർ കൊയ്ത്തു കാലങ്ങളിൽ വിളവെടുക്കുന്ന സമയങ്ങളിൽ ഓണാഘോഷിക്കുന്ന സമയങ്ങളിൽ ഈ കലാരൂപങ്ങൾ വളരെയധികം ഏകോപനം ചെയ്ത് ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാർ ആനന്ദം കണ്ടെത്താറുണ്ട് ഈ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കാനെന്ന വണ്ണം ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുവാനെന്ന വണ്ണം പത്രമാധ്യമങ്ങൾ നിർവ്വഹിക്കുന്ന പങ്ക് ഏറെ പ്രശംസനീയമാണ് ഈ പ്രദേശത്തുള്ള കലാരൂപങ്ങളും കലാ ആവിഷ്കാരങ്ങളും പത്ര മാധ്യമങ്ങൾ വഴി ലോകം മുഴുവൻ ഇത് ദർശിക്കുവാൻ ഇടയാകുന്നു ഈ കലാരൂപങ്ങൾ പരമ്പരാഗതമായി ഈ പ്രദേശത്ത് വളർന്നു വരുന്ന രൂപങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടി മറ്റു കലാരൂപങ്ങളും കലാപരിപാടികളും കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും പ്രായമായവരുടെ ഇടയിലുമൊക്കെ പരിശീലിച്ച് അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ സംജാതമാണ് ഈ മേഖലകളിൽ ദിനപത്രങ്ങൾ ഇതിനു വേണ്ട പ്രോത്സാഹനം നൽകുകയും ഈ വാർത്തകളും കലാ ആവിഷ്കാരങ്ങളുമൊക്കെ ഇതിലുണ്ടാകുന്ന അച്ചീവ് നേട്ടങ്ങളുമെല്ലാം സമൂഹ പൊതു മനഃസാക്ഷിയെ വളരെയധികം സ്പർശിക്കത്തക്ക രീതിയിൽ വാർത്ത ആവിഷ്കരിക്കുകയും ചെയ്യാറുണ്ട് പത്ര മാധ്യമങ്ങൾ ഈ വളർച്ചയ്ക്ക് വഹിക്കുന്ന പങ്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക ബുദ്ധിമുട്ടാണ്

അംഗീകാരവും അഭിനന്ദനങ്ങളും പൊതുജന മധ്യത്തിലുള്ള സ്വീകാര്യതയും പത്രങ്ങൾ വഴി വരുന്ന പ്രചാരത്തിൽ കൂടി ലഭിക്കുന്ന ആ ഒരു സാഹചര്യം ഏറെ പ്രോത്സാഹനജനകമാണ് കലാപരമായ വളർച്ചയുടെ നെടും തൂണായി പത്രത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ പത്ര മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്ന ഈ പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ ഈ മേഖലയിലുള്ള വളർച്ച മുരടിച്ച് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതുവഴി ഇവിടെ അവതരിക്കപ്പെടുന്ന കലാരൂപങ്ങൾ കലാ ആവിഷ്കാരങ്ങൾ ഇവിടെ നിന്നും തൊഴിൽ നേടി പുറത്തും അന്യ നാടുകളിലും അന്യ രാജ്യങ്ങളിലും ഒക്കെ പോയി വന്ന സമൂഹം അവിടെയും അവതരിപ്പിച്ച് അവർ തൃപ്തിയടയാറുണ്ട് സംതൃപ്തിയടയാറുണ്ട് അംഗീകാരം നേടാറുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനിക്കത്തക്കതാണ് പ്രത്യേകിച്ച് എൻ്റെ പ്രദേശത്തുള്ള നാടൻ കലാരൂപങ്ങൾ അമ്പലങ്ങളിലും ഉത്സവങ്ങളിലും പള്ളികളിലും ആരാധനാലയങ്ങളിലുമൊക്കെ നടക്കുന്ന കലാ രൂപങ്ങൾ അതിന് ഈ പത്ര മാധ്യമങ്ങൾ വഴി ലഭിക്കുന്ന അംഗീകാരം മൂലം അതു വളരെയധികം പ്രചരി പ്രചാരം ഇപ്പം സിദ്ധിച്ചു വളർന്നു വരികയാണെന്നുള്ള യാദ്ധ്യത അതിനുള്ള സത്യം ഇവിടെ ഞാൻ അനുസ്മരിക്കുകയാണ് താങ്ക് യൂ